പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം കണ്ടുവരുന്ന മദ്യപാനം ഏറ്റവും കൂടുതൽ ലഹരി മരുന്നിനെക്കുറിച്ചുള്ള അവരുടെ ആ ഉപയോഗത്തിലൂടെ തന്നെയാണ് പല പൗരന്മാരും വഴി തെറ്റി പോകുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആ മദ്യപാനത്തെ പൂർണമായും തുടച്ചുമാറ്റണം എന്നുള്ളൊരു നിലപാടിലാണ് ഞങ്ങൾ അപ്പം അത് പൗരന്മാർ നമുക്ക് സംരക്ഷിക്കുന്നതിന് ഒത്തിരി ഒത്തിരി കരുതലും കാവലും ആയിരിക്കും പിന്നെ കുറ്റകൃത്യങ്ങൾ ഇവരുടെ ഈ മദ്യത്തിൽ നിന്നാണ് ഇവർ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നത് മയക്കുമരുന്ന് മയക്കുമരുന്നിൻ്റെ അടിമത്വത്തിൽ പെടുന്ന ഒത്തിരി പൗരന്മാർ നമ്മുടെ ഇടയിലുണ്ട് ആ ഈ വർദ്ധിച്ചു വരുന്ന നമ്മുടെ ഈ മദ്യപാനത്തിൽ നിന്നും ഈ പിന്നെ മയക്കുമരുന്നിൽ നിന്നും പൂർണ്ണമായിട്ടും നമ്മുടെ പൗരന്മാരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും അവർ മദ്യം കഴിച്ചു കഴിയുമ്പോൾ അവർ അവരല്ലാതായി മാറുന്നു അവരിൽ ആ മദ്യം കഴിച്ചു കഴിഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പ്രവണതകളെ അവർ അവരുടെ വ്യക്തി ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും കുടുബ ജീവിതത്തെയും തകർക്കുന്ന രീതിയിലാണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മദ്യപാനം പൂർണ്ണമായിട്ടും മാറുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പൗരന്മാരെ നമുക്ക് വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും അവരുടെ ജ് കുടുംബത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാവും അതായത് സമൂഹത്തിനും നാടിനും വീടിനും ഒക്കെ അവർ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ വളരെ ദുഃഖകരമായിട്ടുള്ള പ്രവൃത്തികളിലാണ് അവർ ഏർപ്പെടുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്വത്തിൽ നിന്ന് നമ്മുടെ പൗരന്മാരെ മോചിപ്പിക്കാനുള്ള ഒരു ഇത് ഉണ്ടെന്നുണ്ടങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നന്നാവും